മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണേൽ നമ്മുടെ മാതൃഭാഷ തന്നെയാണ് മലയാളം ഇപ്പം ഇത് വായിക്കാനാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് മലയാള ഭാഷ ആയത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയും പിന്നെ വായിക്കാനും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും എല്ലാം കഴിയുന്ന സംഭവമാണ് പിന്നെ നമുക്ക് ഒരാളോട് ഒര് കാര്യത്തേപ്പറ്റി പറയണം എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി നമുക്ക് മറ്റ് ഭാഷകളെക്കാലും കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും അതാ പറയുന്ന ആൾക്ക് പറയാനും കേൾക്കുന്ന ആൾക്ക് കേൾക്കാനും ഒരു നല്ല ഇത് മലയാളം തന്നെയാണ് മറ്റ് ഭാഷകളെക്കാൽ കൂടുതൽ ഇംഗ്ലീഷ്നേക്കാലും കൂടുതൽ നമുക്ക് മലയാളം സംസാരിക്കാൻ കഴിയും ഹിന്ദിനേക്കാളും കൂടുതൽ നമുക്ക് മലയാളം സംസാരിക്കാനാകും അത്കൊണ്ട്തന്നെ മലയാളം മാതൃഭാഷ തന്നെ ഒരു നമ്മള് നല്ലൊരു എളുപ്പം ഉള്ളൊരു ഭാഷ തന്നെയാണ് അത്കൊണ്ട് കൂടാതെ നമുക്ക് അച്ചടി ഭാഷയെന്നാണ് ഇതില് അറിയപ്പെടുന്നത് അച്ചടി ഭാഷ തന്നെയാണ് മലയാളം പിന്നെ എഴുതാനാണെങ്കിലും നമുക്ക് എളുപ്പമുള്ളൊരു വിഷയമാണ് മലയാളം പഠിക്കുന്നതാണെങ്കിലും നമ്മള് കൂടുതലും മലയാളം എടുത്ത് പഠിക്കാനാണ് എല്ലാവരും നോക്കിയത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടുള്ള കാര്യമാണ് മലയാളം പഠിക്കാൻ പാടില്ല